അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫാനാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് അപ്പോൾ ആ ഫാനിനെക്കുറിച്ച് പറയാനാണെങ്കില് ഒരുപാടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്ക് ചൂടുള്ള സമയങ്ങളിലൊക്കെ നമ്മള് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫാനെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഫാനിന് ഇപ്പോൾ പലതരം ഫാനുകളൊക്കെ നമുക്ക് പീടികകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായതിപ്പോൾ സീലിംഗ് ഫാനുണ്ട് സീലിംഗ് ഫാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭിത്തി അതായത് നമ്മള് അതായത് നമ്മടെ മേലെ അതായത് മേലെ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ഫാനെന്നു പറഞ്ഞു കഴിഞ്ഞാല് സീലിംഗ് ഫാൻ അപ്പോൾ അതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് നമ്മുടെ റൂം മൊത്തത്തില് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ചില സമയത്ത് അപ്പോൾ അത് അതിനെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാൾ ഫാനാണ് അപ്പോൾ അതാണെങ്കില് ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഇപ്പോൾ എവിടെ നമ്മൾക്ക് മുഖത്താണ് കാറ്റടിക്കണമെങ്കില് ഇപ്പോൾ അല്ലെങ്കില് നമ്മളെ മേത്താണ് കാറ്റടിക്കേണ്ടതെങ്കില് എവിടെയാണ് കാറ്റടിക്കണമെന്നു വച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ആ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഫാനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ പലരീതിയിലുള്ള ഫാനുകളും കാര്യങ്ങളൊക്കെയുണ്ട് ഇതിനായിട്ട് നല്ലൊരു പ്രൊഡക്ടാണ് എനിക്ക് തോന്നുന്നു ഫാനെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നമ്മള് ഈ ചൂടുള്ളൊരു കാലാവസ്ഥയില് നമ്മൾക്ക് നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ നല്ലതാണ്